സാധാരണ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ നടത്തി വരുന്നത് പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീകളുടെ കുടുംബശ്രീപോലുള്ള സംരംഭങ്ങളൊക്കെയാണ് ഇതു നടത്തി വരുന്നത് അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ കരകൗശല വസ്തുക്കളുണ്ടാക്കുന്നതും അതൊക്കെ സൗജന്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ അത് അവിടെ പോയിട്ട് അവരുടെ അടുത്തു പോയിരുന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം കാരണം അവിടെ ചിലവൊന്നും ഇല്ല അതേ സ്ഥാനത്ത് നമുക്കിപ്പോൾ അല്ലാണ്ട് പഠിക്കണം എന്ന് ആണെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നടത്തുന്ന പുറമെയുള്ള ടൗണുകളിലൊക്കെ പോയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് അവർ പഠിപ്പിച്ചു തരൂള്ളൂ അപ്പോൾ അത് നമുക്ക് ചിലവായതുകൊണ്ട് നമ്മൾ സാധാരണ ഈ എളുപ്പത്തിൽ പഠിക്കാനും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഈ പഞ്ചായത്തും കുടുംബശ്രീ പോലുള്ളവരൊക്കെ നടത്തുന്ന പരിപാടിക്കാണ് നമ്മൾ പോവാറ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ ഈ ആദിവാസി ആദിവാസികളൊക്കെ അവരുടേതായ ചില കരകൗശല വസ്തുക്കളും അവർ അവരുടേതായ കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ നമ്മൾക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചുതരും പറഞ്ഞു തരികയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കത് പഠിക്കാനൊക്കെ എളുപ്പമാണ് സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത് പഠിക്കുന്നതും മറ്റേ പരിപാടികളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്